ഹലോ ബാങ്കായിരുന്നു ആരാ സംസാരിക്കുന്നത് ആ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നോ ആ ലാർജ് ഏരിയ ബിസിനസ്സാണോ ആ ഈ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ ആ ലോൺ എടുക്കാൻ പറ്റും ഇപ്പം അഞ്ച് ശതമാനം പലിശ ആണുള്ളത് അഞ്ച് ശതമാനം പലിശയാണുള്ളത് ആ നിങ്ങളിപ്പോൾ എന്താ പറയുക ആധാരം ശ്ശേ എന്താ പറയുക ആധാരമോ അങ്ങനെയെന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ ഗോൾഡ് എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ പുറത്തുനിന്നൊരു ജാമ്യം വേണ്ടി വരില്ല ഇപ്പം സ്ഥലമാണെങ്കിൽ കുഴപ്പമില്ല ബിൽഡിങ്ങൊക്കെ ആണെങ്കിൽ പുറത്തുനിന്ന് ജാമ്യം വേണ്ടിവരും

ഇല്ലില്ല പുറത്തുനിന്നുതന്നെ വേണ്ടിവരും ആ ഓക്കെ എമൗണ്ടൊന്നും പ്രശ്നമില്ല അത് നമ്മൾ വെക്കുന്ന എന്താ സ്വർണ്ണത്തിനനുസരിച്ചാണ് വരുക ഒരു അഞ്ച് പവനൊക്കെ ആണെങ്കിൽ പതിനഞ്ചിനു മേലെ കിട്ടും

ആ കല്പറ്റയുണ്ട് ബത്തേരി ഉണ്ട് മാന്തവാടി ഉണ്ട്

ഞാൻ കല്പറ്റ ബ്രാഞ്ചിലാണ് വന്നാൽ മതി പറഞ്ഞാൽ മതി ഇങ്ങനെ ലോണിനായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ മതി എന്റെ പേര് സാറ ഇപ്പോൾ വൺ വീക്ക് വേണ്ടിവരും ഇതിന്റെ പേപ്പറൊക്കെ ഒന്ന് പ്രോസസ്സ് ആയി വരാൻ വേണ്ടീട്ട് അപ്പം ഒരു മാസം ഒരു മാസം വേണ്ട ഒരു മാസത്തിനുള്ളിൽ കിട്ടും എന്തായാലും

ആ പെട്ടന്ന് ചെയ്യാൻ പറ്റും മാസം മാസത്തിലാണ് അടവ് വരുന്നത് ആ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ആ അത് നിങ്ങൾ വിചാരിക്കുന്നതു മാസം പോലെയാണ് ഇപ്പം വർഷം പോലെയാണ് ഇപ്പം അഞ്ച് വർഷത്തേക്കാണെങ്കിൽ അഞ്ച് വർഷത്തേക്ക് തന്നെ എടുക്കാം നേരത്തെ അടച്ചവർക്ക് ആ അങ്ങനെയൊന്നും നിങ്ങൾക്ക് ഇപ്പം പലിശ കൂടുമല്ലോ അപ്പം അതിനനുസരിച്ച് നിങ്ങൾ നോക്കുക ആ അപ്പോൾ അക്കൗണ്ട് എടുക്കാൻ ഇങ്ങോട്ടേക്കാ വരുന്നത് അക്കൗണ്ട് എടുക്കുന്നെങ്കിൽ ആ കുഴപ്പമില്ല ആ പറയു ആ ഇപ്പോൾ അക്കൗണ്ട് എടുക്കണമെങ്കിൽ നാല് ഫോട്ടോയും ആധാറൊക്കെയായിട്ട് വന്നാൽ മതീട്ടോ ആ അതെ അതെ

ആ മതി മതി ഓക്കെ